നമ്മൾ ഈ സമയത്ത് ഇവിടന്ന് പുറപ്പെട്ടിട്ടിണ്ടെങ്കില് ഏകദേശം എത്ര മണിയാകുമ്പം നമ്മുടെ ക്യാബ് നമുക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്ത് എത്തിച്ചേരും എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം പറയുവാണെങ്കിൽ എനിക്കത് യൂസ് ഫുള്ളായിരുന്നു മാത്രല്ല ടൈം ഒന്ന് കാൽകുലേറ്റ് ചെയ്തിട്ട് ഡിലെ ആകുന്നുണ്ടെങ്കില് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു നമ്മൾ പോകുന്ന റോഡിൻ്റെ നിർമാണം നടന്നുകൊണ്ടിരിക്കുക ആയത് കൊണ്ട് തന്നെ എന്തെങ്കിലും ട്രാഫിക് ബ്ലോക്സ് വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയാണെങ്കില് നമ്മള് എത്തിച്ചേരേണ്ട സമയത്തിൽ നിന്ന് എത്രത്തോളം വീണ്ടും ലാഗ് ആവും ലാഗ് ആവും അതിനെപ്പറ്റി പറയാൻ കഴിയുമോ അതേപോലെ ലൊക്കേഷനിൽ നമുക്ക് മാക്സിമം എത്തിച്ചേരാൻ പറ്റിയ ബെസ്റ്റ് റൂട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വഴി ഒന്ന് നോക്കാവുന്നത് നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് എത്തിച്ചേരുകാന്നുള്ളത് കുറച്ച് അർജന്റായിരുന്നു